ഗ്രാമങ്ങളിലും പട്ടണങ്ങളും കളികൾ തമ്മിൽ ഒത്തിരി വ്യത്യാസവുണ്ട് കാരണം എന്നു വച്ചാൽ പട്ടണങ്ങളിലാണെങ്കിൽ അവർ ഒര് ക്ലബായാലും ടർഫായാലും അവർ പൈസ കൊടുത്തുണ്ടാക്കി അവർ അവരുടെ അവർ വ്യായാമമൊക്കെ ചെയ്യും എന്നു പറഞ്ഞാൽ പൈസ കൊടുത്താണ് അവരെല്ലാം ചെയ്യുന്നത് അവർക്ക് അവരുടേതായ കാര്യങ്ങൾ എന്നാന്ന് വച്ചാൽ മറ്റേ ഈ അവിടുത്തെ ക്ലബ്ബിൽ അംഗമായ ആൾക്കാർക്ക് മാത്രമേ അവിടെ വന്ന് ഈ വ്യായാമങ്ങളായാലും കളികളായാലും ചെയ്യാൻ പറ്റത്തുള്ളു പക്ഷേ നേരെതിരിച്ച് ഗ്രാമങ്ങളിലാണെന്നുണ്ടെങ്കിൽ കുട്ടികളെല്ലാം ഒരുമിച്ച് എല്ലാം ഒത്തുകൂടി കാരണം വച്ചാൽ അവിടുത്തെ ഈ പട്ടണങ്ങളിലെ പോലെ ക്ലബ്ബുകളിലും അങ്ങനെയൊന്നുമല്ല അതൊരു മൈതാനം നമ്മളൊരു ഗ്രൗണ്ടിൽ പോയി എല്ലാവരും ഒത്തുകൂടിയാണ് ഇവിടെ ആരോഗ്യം നമ്മൾ കാത്തുസൂക്ഷിക്കുന്നത് കാരണം വച്ചാൽ എല്ലാം എന്തുവായാലും ഫുട്ബോളായാലും ക്രിക്കറ്റായാലും വോളിബോളായാലും എന്തുവാ എന്തു കളികളാലും എല്ലാം ഒരുമിച്ച് പുറത്തു നിന്ന് ഒരാളെപ്പോലും മാറ്റിനിർത്താതെയാണ് ഈ ഗ്രാമങ്ങളിൽ കുട്ടികൾ ഈ കളികൾ കളി കളിക്കുന്നത് കാരണം വെച്ചാൽ അതിനകത്ത് പറയാൻ വന്നത് എന്താണെന്നുവെച്ചാൽ പട്ടണങ്ങളിലെ ആൾക്കാർക്ക് അവർ പൈസ പൈസ കൊടുത്താണ് അവർ അവരുടെ ആരോഗ്യങ്ങൾ നോക്കുന്നത് ഇവിടെയങ്ങനെയല്ല ഇവിടെ എല്ലാവരും ഒരുമിച്ച് അവർ വെയിലത്തായാലും മഴയത്തായാലും ഒരുമിച്ചുള്ള കളി അതൊരു ഒരു പ്രത്യേകതരം ഫീലാണ് ആച്ചാല് ഗ്രാമങ്ങളിൽ അല്ല പട്ടണങ്ങളിലങ്ങനെ അല്ലല്ലോ കാരണം വെച്ചാൽ ഇവർ ഒരു ഒന്നുകിൽ ഒരു വലിയൊരു ക്ലബ്ബിൽ ഒരു ഒരു അടച്ച് അടച്ചുപൂട്ടിയ മുറിയ്ക്കകത്തായിരിക്കാം പിന്നെ ടർഫ് പോലെ ഉള്ള അതിനകത്ത് മിക്കതും ഗ്രില്ലിട്ടതിനകത്തായിരിക്കും ഇതങ്ങ് ഓപ്പണായിരിക്കും നമ്മളിപ്പം കാരണം വെച്ചാൽ അതുകൊണ്ടുതന്നെയാണ് പറയുന്നത് പട്ടണങ്ങളായാലും ഗ്രാമങ്ങളായാലും രണ്ടും രണ്ടായിട്ട് വ്യത്യാസം വരുന്ന ഈ കളികളിലായാലും എന്ത് കാര്യത്തിലായാലും